ഓ കബോഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഇതല്ലേ കാബോഡ് ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വില്ക്കുന്ന കടയല്ലേ എന്തിനൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെയുള്ളത് കബോഡിൻ്റെ എല്ലാ പണികൾക്കുമുള്ള സാധനങ്ങളുണ്ടോ അപ്പോള് ഇതൊക്കെ അതിന് സ്ക്വയറിനെത്ര എന്തു വിലയാണ്

അപ്പോഴങ്ങനെയാണ് സാധനമെടുത്തു കഴിഞ്ഞാല് നിങ്ങള് അതിൻ്റെ പണിയൊക്കെ തരാനുള്ള ആൾക്കാരെ സഹിതം വിടുമോ കബോഡ് പണിയാനുള്ള ആൾക്കാരെ സഹിതം വിട്ടുതരുമോ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കയറിത്താമസിക്കേണ്ട വീടാണ് അപ്പോള് അതിനകത്തുള്ള പണികളെല്ലാം നേരത്തെ തന്നെ തീർക്കാൻ വിധത്തിലുള്ള നല്ല രീതിയിൽ പണിയൊക്കെ ഫിനിഷിങ്ങായിരിക്കണം ആ ഒരുമാതിരി നല്ല നല്ല ഇതായിക്കോട്ടെ ഒരുമാതിരി നല്ല പീസായിക്കോട്ടെ ഒരു പത്ത് രണ്ടായിരം സ്ക്വയര് അടി വേണം ഏ രണ്ടായിരം സ്ക്വയറെങ്കിലും വേണം ആ എന്തു വിലയ്ക്ക് നമുക്ക് തരും എന്ത് മുടക്കമാകും നമുക്ക് മൊത്തം ആ രണ്ടായിരം സ്ക്വയര് പീസ് വേണം നല്ല മുഴുത്ത പുരയാണ് അടുക്കളയ്ക്ക് വേണം അടുക്കളയ്ക്ക് വേണം സ്റ്റോറൂമിന് വേണം പിന്നെ ബെഡ്റൂമിന് വേണം ആ ആ അളവൊക്കെയെടുത്തിട്ട് ചെയ്യാമല്ലെ ആ അപ്പോള് അളവൊക്കെ അറിയാനായിട്ട് ആരെയെങ്കിലും സ്റ്റാഫുകളെ വിടാമോ ആ ആ ഞാൻ ആ ഉണ്ടാകും ഞാനിവിടെയുണ്ടാകും മറ്റുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് വാഷ് അതുപോലെ മറ്റുള്ള മേസ്തിരിമാരുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുടനെത്തന്നെ തീർക്കാനുള്ള പണിയാണ് ഇപ്പം മുറിയെല്ലാം ശരിയായതാണ് മുറി കുഴപ്പമില്ല വെളിയിലുള്ള പണികളെയുള്ളൂ കാരണം ഉഴപ്പാതെ സ്റ്റാഫുകളെ വിട്ടേക്കണം കേട്ടോ ആ പിന്നെ ആ പിന്നെ ഇടമുറിക്കും ഇടമുറിക്കു മുന്ന് നാല് ഡോര് പിടിപ്പിക്കാനുണ്ട് നിങ്ങള് ഗ്ലാസ് വർക്ക് ചെയ്യുമോ ഗ്ലാസ്സിൻ്റെ വർക്കുണ്ടോ ആ ഗ്ലാസ് വർക്കുമുണ്ടല്ലേ അതെയോ ആ അപ്പോള് ഒരു കാര്യം ചെയ്യാം അത് അതിൻ്റെ അളവും എടുക്കണം നമുക്ക് ആ ആ ഒക്കെ ന്യായമായ രീതിയിൽ ചെയ്യണം ഇത്രയും എത്രയും നല്ല നല്ല സാമ്പത്തികം മുടക്കും അപ്പോള് അവരുടേതായ രീതിയിലുള്ള നല്ല ഫിനിഷിങ് വേണം ശരി കാണാം അടുത്ത ദിവസം ആളെ വിട്ടേക്കൂ വിട്ടേക്കൂ